വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഭാഷ പഠിക്കുക എന്നു പറഞ്ഞാല് ഒരു ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇതു ഞാൻ വെറുതേ പറയുന്നതല്ല കാരണം എന്താണെന്നുവച്ചാല് ഒരു മനുഷ്യന് എവിടെ പോയാലും സർവൈവ് ചെയ്യണമെങ്കില് ഏറ്റവും ഫസ്റ്റ് ടൂളെന്താണ് അതു ഭാഷയാണ് സോ നമുക്കിങ്ങനെ തോന്നും നമ്മളിപ്പോള് ഏതു ഭാഷ പഠിച്ചിട്ടില്ലെങ്കിലെന്താണ് നമ്മളവിടെ എത്തിച്ചേർന്നാല് നമുക്കതു കിട്ടും ഉദാഹരണത്തിന് ബംഗാളികള് ഇവിടെ വന്നിട്ട് ഇവിടെനിന്നു മലയാളം സംസാരിക്കില്ലേ മലയാളികള് പ്രവാസത്തു പോയിട്ട് അവിടെ പോയിട്ട് അറബി സംസാരിക്കില്ലേ അത് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഒരു മനുഷ്യന് അതിൻ്റെ സിസ്റ്റമാറ്റിക് രീതിയിലൊരു ലാംഗ്വേജ് പഠിച്ചു എന്നു പറഞ്ഞാല് അതൊരു ഭയങ്കര അഡ്വാന്റേജാണ് കാരണം എന്താണെന്നുവച്ചാല് ഒരുപാട് സ്കോപ്പുകൾ ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്കു കിട്ടുന്നുണ്ട് ഒരുപാടു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ ഒരു പ്രതിനിധാനമായിരിക്കും ഓരോ ഭാഷകളും ഉദാഹരണത്തിന് ജർമ്മൻ കൾച്ചര് പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കും ജർമ്മൻ ഭാഷ അതുപോലെ തന്നെ അറബി എന്താണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും അവരുടെ ഓരോ കൾച്ചറാണ് അതിലൂടെ തെളിയുന്നത് അപ്പോള് ഈ ലോകത്തിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കില് ഒരു മാപ്പ് മാത്രം പഠിച്ചാല്പ്പോരാ ആ ഭാഷ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക വിദ്യാധനം സര്വധനാല് പ്രധാനം എന്നല്ലേ എന്നാല് ഇന്നത്തെ കാലത്ത് ഭാഷ പഠിക്കുകയെന്നു പറഞ്ഞാല് ഭയങ്കര അഡ്വാന്റേജാണ് സംഭവം ശരിയാണ് നമുക്ക് ഏതു ഭാഷ വേണമെങ്കിലും ഇപ്പോല് സപ്പോസ് നമുക്കിപ്പോഴൊരു ഭാഷ അറിയില്ല നമ്മളഅ എവിടേലും പോയി കുടുങ്ങി ഗൂഗിൾ ട്രാൻസ്ലേഷന് എ ഐ ലൈവ് ട്രാൻസ്ലേഷന് എല്ലാം ഉണ്ട് എന്നു വിചാരിച്ച് ഒരു ഭാഷ നിങ്ങൾ പഠിക്കാതിരിക്കരുത് കാരണം ഭാഷ എന്നു പറഞ്ഞാല് നമ്മള് എവിടെ പോയാലും കുടുങ്ങാതിരിക്കാന് ഭാഷ നമുക്ക് അത്യാവശ്യമാണ് കാരണം എന്താണെന്നുവച്ചാല് ഇപ്പോള് നമ്മളൊക്കെ എവിടെ പോയാലും ഇപ്പോഴൊരു ഞാൻ പറഞ്ഞുതരാം ഒരു മതസ്ഥര് ഒരു പ്രത്യേക മതസ്ഥര് ഉദാഹണത്തിന് ഇപ്പോള് മുസ്ലീങ്ങള് ആണെന്നു വിചാരിച്ചോളൂ മുസ്ലീങ്ങളെ എടുത്തിട്ട് അവരെവിടെ പോയാലും ഒരിക്കലും കുടുങ്ങില്ല കാരണം എന്താണെന്നുവച്ചാല് അവര് അവരുടെ മഹത്തായ ഗ്രന്ഥങ്ങളുടെ ഭാഷ എന്തായാലും ഒരു ഭാഷയായിരിക്കും ഇപ്പോള് ഉദാഹരണത്തിന് അറബിയാണ് അപ്പോള് അവര് എങ്ങനെയെങ്കിലും പടച്ചോൻ എങ്ങനെയെങ്കിലും പിടിച്ചുകയറും ഉം ഇപ്പോള് നമ്മള് ഇന്ത്യയിൽ തന്നെ ഭാഷ പഠിക്കാൻ നമ്മളിറങ്ങുകയാണെങ്കില് നമുക്ക് ഏതൊക്കെ ഭാഷ പഠിക്കാം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ മുഴുവന് ഭാഷ പഠിച്ചാല്ത്തന്നെ നമുക്കൊരു എന്താ പറയുക അത്യാവശ്യം അഡ്വാന്റേജാണ് ഉദാഹരണത്തിനിപ്പോള് തമിഴ്നാടില് തമിഴ് ഭാഷ പഠിക്കാം കർണാടകയില്ത്തന്നെ കന്നഡ പഠിക്കാം ഈ കർണ്ണാടക എന്നൊക്കെ പറഞ്ഞാല് അവിടെ ഒരുപാട് ഭാഷകളുണ്ട് ബേരി തളു അങ്ങനെ ഒരുപാട് ഇന്ത്യയില് എന്താണു പറയുക ഒരു മാതൃ ഭാഷ നിലവിലില്ല അതായത് ഹിന്ദി അല്ല ഹിന്ദിയും ഇംഗ്ലീഷുമാണ് മാതൃഭാഷയെന്നു കൺസിഡറെയ്യുന്നേ പക്ഷെ ഒരു മാതൃഭാഷ ഇല്ല കാരണം എന്താണ് ഭാഷ എന്നു പറഞ്ഞാല് അതൊരു അതിര്വരമ്പിടാൻ പറ്റാത്തതാണ് സോ മാക്സിമം എത്ര ഭാഷ പഠിക്കാൻ കഴിയുന്നോ അത്രയും ഭാഷ പഠിക്കുക അത് ഒരിക്കലും എന്താ പറയുക ലൈഫില് ഏറ്റവും ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റായിരിക്കും കാരണം എന്താണെന്നുവച്ചാല് ഒരു സി വിയിലും നമ്മുടെ നമ്മുടെ സ്കിൽ എന്താണെന്നു ചോദിച്ചാല് നമുക്കീ ഭാഷ അറിയാമെന്നു പറഞ്ഞാല് നിങ്ങളാണ് ആ എമങ് ആരൊക്കെയാണോ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് അതിൻ്റെ ഇടയില് ഏറ്റവും ഏറ്റവും മുന്നിൽ നില്ക്കുന്ന ആൾ എന്തായിരിക്കും ഭാഷ അറിയുന്നവൻ തന്നെ ആയിരിക്കും